എൻ്റേതായ കാഴ്ചപ്പാടിൽ പുതിയ സംരംഭങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ വിദേശരാജ്യങ്ങളിൽ ഉള്ളതുപോലെ ഇപ്പോൾ ഈ സ്കൂളുകളിലും കോളേജിലുമൊക്കെ പാർട്ട് ടൈമായിട്ട് പിള്ളേർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്താൽ അത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതിനു പറ്റിയ സംരംഭങ്ങൾ നമ്മുടെ ഇവിടെ യുവാക്കളെല്ലാം വെറുതെ രാഷ്ട്രീയത്തിൻ്റെ പുറകെയും അല്ലെങ്കിൽ ഗുണ്ടായിസത്തിൻ്റെ പുറകെയും അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ പുറകെ ഒന്നും പോവാതെ അവർക്ക് ഒരു ഏണിംഗ് ഉണ്ടാക്കാൻ ഒരു ചെറിയ അവർക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനും പിന്നെ വെറുതെ അലസരായി പോവാതെയൊക്കെ ഇരിക്കാനും അതിനു ഒരു അവസരം ഉണ്ടാക്കണം എന്നുള്ള ഒരു വ്യക്തിപരമായ പരിമിതികളിൽ നിന്ന് കൊണ്ട് ഒരു ആഗ്രഹം ഉണ്ട് പക്ഷേ നടക്കാൻ എന്നെ സംബന്ധിച്ചത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നടത്താൻ എന്നാലും അങ്ങനെ ഒരു ആഗ്രഹം ആരെങ്കിലും തുടങ്ങിയിരുന്നെങ്കിൽ നിന്നും ഉണ്ടായിരുന്നു ഉണ്ട് കാരണം ഈ പാർട് ടൈം ജോബ് ചെയ്ത് പിള്ളേർക്ക് ഒരു അപ്പം പഠിത്തം കഴിഞ്ഞാൽ പിന്നെ നേരെ വന്ന് ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് പിന്നെ പോയി പഠിക്കാൻ പോകാനും അപ്പം പിള്ളേർക്ക് അതൊരു ഈ പേരൻസിനെ എല്ലാ കാര്യത്തിലും ആശ്രയിക്കാതെ അവരുടെ കൈയിൽ സ്വന്തം സ്വന്തം ഒരു വരുമാനം ഉള്ളത് അവരെ സംബന്ധിച്ച് നല്ലതാണ് രണ്ടാമത് അവർ സ്വന്തമായി ഉണ്ടാക്കുന്ന പൈസ യൂസ്ലെസ് ആയിട്ട് അവർ ഉപയോഗിക്കുകയില്ല അതൊരു അവർക്ക് സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം അവർ അത് ഏറ്റവും സൂക്ഷ്മതയോടെ ഉപകരിക്കുകയുള്ളൂ അങ്ങനെ ഒരു നല്ല എന്തെങ്കിലും ഒക്കെ സമീപനങ്ങൾ ആരെങ്കിലുമൊക്കെ എടുത്താൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അപ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ച് വലിയ ഹാർഡ് വർക്കൊന്നുമില്ലാതെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഫുഡ് പ്രോഡക്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഇപ്പോൾ നമ്മൾക്ക് അതിനെ ഇന്നതെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങിയാൽ നല്ലതാണ് ആരെങ്കിലും ഒക്കെ തുടങ്ങിയാൽ എനിക്ക് തുടങ്ങാനുള്ള സാഹചര്യങ്ങളില്ല അതിന് ഇൻവെസ്റ്റ്മെൻ്റ് വേണം അല്ലെങ്കിൽ അതിനുള്ള ആ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള കഴിവ് വേണം ഇതൊന്നും എന്നെ സംബന്ധിച്ചെടുത്തോളം പരിമിതമാണ് അപ്പം ആരെങ്കിലും ഒക്കെ ഇത് സമൂഹത്തിൽ അതിന് അങ്ങനെ ഒരു തുടക്കം ഇട്ടാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്